ഒരുലക്ഷത്തി അറുപത്തയ്യായിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്ന് ഇരുപത്തേഴായിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് നാൽപ്പത്താറായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് അയ്യായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത്